ഹലോ നമസ്കാരം നമസ്കാരം മേഡം വരൂ ശരിക്കും എന്നാൽ ഇരി ഇരിക്കൂ മേഡം ഇരിക്കൂ വരൂ വരൂ മേഡം എന്ത് എന്ത് സഹായമാണ് വേണ്ടത്

ഓക്കെ ഒന്ന് ടിക്കറ്റ് തരൂ നോക്കട്ടെ എപ്പോഴത്തേക്കാണ് ബുക്ക് ചെയ്തത് നോക്കട്ടെ

ആ ആ ഓ തന്നെ ഓ ഓക്കെ മേഡം ഓ ഇനി പോവാൻ ഒരു പത്ത് ദിവസം കൂടി ഉണ്ടല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇനി പത്ത് പത്ത് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ മേഡം അത് ഞാൻ ഓക്കെ നമുക്ക് ക്യാൻസലേഷൻ പ്രൊസീജിയർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റ ഉള്ളിൽ ക്യാൻസലേഷൻ ചെയ്യാവുന്നതാണ് പക്ഷേ അത് ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ ക്യാൻസലിംഗ് ചാർജ് വരുന്നുണ്ട് ചെറിയ തോതിൽ ചെറിയൊരു ടെൻ പെർസെൻ്റെജോളം ക്യാൻസലേഷൻ ചാർജ് വരും നമുക്ക് അപ്പം നമുക്ക് ഇത്ര ദിവസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ചെറിയ എമൗണ്ട് അത് ഇരുപത്തി നാല് മണിക്കൂർ മുൻപ് ആണെങ്കിൽ പത്ത് ശതമാനം അതിന് അതിന് മുന്നോടി ഒക്കെ ആണെങ്കിൽ ഈ അഞ്ച് ശതമാനം ഉള്ളൂ ക്യാൻസലേഷൻ ചാർജ് വരുന്നത് അതുകൊണ്ട് ഇപ്പം ഇപ്പം കൈയ്യോടെ ക്യാൻസലേഷൻ ചെയ്യണമെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യാം ഫൈവ് തൗസൻഡ് ചെയ്ത് ഈ ചാർജിൻ്റ ടിക്കറ്റ് ചാർജിന്റെ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ചാർജ് വരുള്ളൂ ക്യാൻസലേഷൻ ചാർജ് വരുള്ളൂ ബാക്കിയുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്കുതന്നെ ഓട്ടോമാറ്റിക്കലി വരും വരും ആ തീർച്ചയായും വരും നമുക്ക് അതായത് ക്യാൻസലേഷൻ ചെയ്യുമ്പം ആ ബാക്കി ഡീറ്റെയിൽസും കൂടി നമ്മളെ ആ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് അത് വിത്തിൻ ഫോർട്ടീൻ ഫോർട്ടി എയിറ്റ് ഹവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ക്യാൻസലേഷൻ ചാർജ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് താങ്കളുടെ അക്കൗണ്ടിലേക്ക് കേ കയറുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം ആ അപ്പം എനിക്ക് ആ പ്രൂഫ് ഒന്നും വേണ്ട എനിക്ക് ആ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് തന്നാൽ മതി ഓക്കെ ആ ഓക്കെ ശരി ഞാൻ ക്യാൻസലേഷന് പ്രോസസ്സിംഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നാൽപത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നതായിരിക്കും ഇനി അത് അക്കൗണ്ടിലേക്ക് പൈസ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ്റെ മെസ്സേജും മെസ്സേജും വരും അതിന് പുറമേ അതിനു പുറമേ നമുക്ക് അത് ബാക്കി ഉള്ള എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള മെസ്സേജ് എല്ലാം പണം വരും വരുന്നത് ആയിരിക്കും എങ്ങനെ ഓക്കെ ഇത് ക്യാൻസലേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം വെച്ചാൽ നമ്മള ഈ ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ മേഡം